കീടനാശിനി തളിച്ച പച്ചക്കറികൾ വീട്ടിൽ കൊണ്ടു കൊണ്ടു വന്നതിന് ഉടനെ തന്നെ അതിനെ നല്ല തണുത്ത പച്ചവെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴുകുക പിന്നെ ആ വെള്ളത്തിൽ നിന്ന് എടുത്തതിനു ശേഷം ഉപ്പിട്ട പച്ചവെള്ളത്തിൽ അതിനെ ഒരു പതിനഞ്ചു മിനിറ്റ് ഒന്നും കൂടെ കഴുകിയതിനു ശേഷം കുറച്ചു ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട വെള്ളത്തിൽ അതിനെ കുറച്ച് നേരം താഴ്ത്തി വയ്ക്കുക ഒരു അര മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം അതിനെ ഒന്നു കൂടെ എടുക്കുക പിന്നെ അതിനെ നല്ല തണുത്ത വെള്ളത്തിൽ നല്ലതു പോലെ വൃത്തിയായി അഴുക്കെല്ലാം പോകുന്ന വിധം നല്ല വൃത്തിക്ക് കഴുകി എടുക്കണം കഴുകി എടുക്കുക അതാണ് ശരീരത്തിന് നല്ലത് അപ്പോൽ അതിലുള്ള കീടനാശിനി എല്ലാം അതിലൂടെ പോകുന്നതാണ് അതുപോലെ തന്നെ കൂടുതലും നമ്മൾ ഈ കീടനാശിനികൾ തളിച്ച പച്ചക്കറികൾ വാങ്ങിച്ച് കഴിക്കാതെ നമുക്ക് പറ്റുന്ന പച്ചക്കറികളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ആരോഗ്യത്തിനും അതുപോലെ തന്നെ നല്ലത് ആരോഗ്യത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാത്തിനും നല്ലത് കാരണം എന്താണെന്ന് വച്ചാൽ കീടനാശിനി തളിച്ച പച്ചക്കറി കീടങ്ങളെ അകറ്റാനുള്ളതാണ് അതൊരു വിഷപദാർത്ഥമാണ് അത് നമ്മുടെ ശരീരത്തിൽ ചെന്ന് തനതായ അസുഖങ്ങളും അതുപോലെ തന്നെ ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകും അതിന് അതുകൊണ്ടു തന്നെ പരമാവധി നമ്മൾ താഴിക പോലുള്ള കീടനാശിനി തളിച്ച പച്ചക്കറികൾ കഴിക്കാതിരിക്കുക ഓക്കേ